ഹലോ റെയിൽവേ സ്റ്റേഷൻ ആണോ ട്രെയിൻ ബുക്ക് ചെയ്യാൻ വേണ്ടി ആയിരുന്നേ ചെന്നൈ ടു ബാംഗ്ലൂർ അതായത് ആണല്ലേ അപ്പം എത്ര റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞുതരുവോ

എങ്ങനെയാണ് റേറ്റ് സെക്കൻഡ് ക്ലാസ്സിന് ആണെങ്കിൽ എങ്ങനെയാണ് റേറ്റ് സ്ലീപ്പർ ആണ് എങ്ങനെയാണ് റേറ്റ് ഒന്ന് നാനൂറ്റി അറുപത് രൂപ വരും അല്ലേ സ്ലീപ്പർ ആണെങ്കിലോ രണ്ട് മുന്നൂറ് അല്ലേ അങ്ങനെ ആണ് സെക്കൻഡ് ക്ലാസ്സ് മതി നമ്മൾ ഒരു പതിനഞ്ച് പേര് ഉണ്ട് കേട്ടോ കുട്ടികൾ ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും കുറവ് ഉണ്ടോ അതോ നമ്മുടെ അതേ റേറ്റ് തന്നെ കുട്ടികൾക്കും കൊടുക്കണോ ആണല്ലേ മ് ആ അതെ അങ്ങനെ ചെയ്യണം അല്ലേ ആ അങ്ങനെ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രെയിനിൽ തന്നെ ആ അതിന് ഉള്ള പൈസ നിങ്ങൾക്ക് തരണോ അതോ നമുക്ക് ട്രെയിനിൽ ഇങ്ങനെ ആണല്ലേ നമുക്ക് സെക്കൻഡ് ക്ലാസ്സ് അല്ലേ ആ നമ്മൾ അപ്പോൾത്തന്നെ അവർക്ക് പൈസ കൊടുത്തിട്ട് അങ്ങനെ മേടിക്കണം അല്ലേ ആ അങ്ങനെ ഒക്കെ ആണ് അല്ലേ ആ അതെ ഹാ ഹാ ഹാ അപ്പോൾ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ചെന്നൈ ടു ബാംഗ്ളൂരിലേക്ക് എത്ര ടൈം എടുക്കും അപ്പം നാളെ രാവിലെ എത്ര മണിക്കാണ് ട്രെയിൻ എന്ന് ഒന്ന് പറയുവോ എയ്റ്റ് തേർട്ടി അല്ലേ അപ്പം എത്ര മണി ആവുമ്പോൾ എത്തും ചെന്നൈ ആ അത്ര ആവുമ്പോൾ എത്തുവല്ലോ അല്ലേ അല്ലേ അപ്പോൾ നമ്മൾ എത്ര അതായത് എത്ര മണിക്ക് വരണം അതായത് ആ ടൈം ആവുമ്പോഴത്തേക്ക് എത്തിയാൽ മതിയോ അതോ നേരത്തെ തന്നെ എത്തണോ ആ ഓക്കെ മതി അല്ലേ ആ ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒര് ടൈം ആവുമ്പോഴത്തേക്ക് എത്തിയാൽ പോരേ നേരത്തെ എത്തുകയൊന്നും വേണ്ടല്ലോ ആ ഓക്കെ അങ്ങനെ ആണെങ്കിൽ പതിനഞ്ച് സീറ്റ് ബുക്ക് ചെയ്യണം കേട്ടോ ആ പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം ആ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക്യൂ